ഹലോ ആ

പതിനഞ്ച് കിലോ ബീഫോ പിന്നെ അത് കിട്ടുവല്ലോ ഏത് എങ്ങനെ എങ്ങനെ വേണം അത് ഇറച്ചി മാത്രമായിട്ട് വേണോ എല്ല് വേണോ ഞങ്ങള് ഇറച്ചി ആ ഇറച്ചി വീട്ടിൽ കൊണ്ടുവന്ന് പതിനഞ്ച് കിലോ ഒന്നാമത് എന്ത് മാത്രം ദൂരം ഉണ്ട് വണ്ടി വരാൻ പറ്റുന്നതാണോ അത് കൊണ്ടുത്തരാം കൊണ്ടുത്തരാം പക്ഷേ നമ്മുടെ നമ്മളുടെ ഇറച്ചി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മീറ്റ് മാത്രം എല്ല് സെപ്പറേറ്റ് വേണോ എല്ലുവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് മുന്നൂറ്റി എൺപത് രൂപായ്ക്ക് കൊടുക്കും അല്ലെങ്കിൽ നമ്മള് മീറ്റ് മാത്രവാണെങ്കിൽ നാനൂറ് രൂപായ്ക്ക് കൊടുക്കും ആ ഫ്രഷായിരിക്കും അന്ന് ഇപ്പോൾ പറ്റുമോ നമുക്ക് ഡെയിലി പോകണം എത്ര കിലോ നൂറ് കണക്കിന് കിലോ പോകുന്നതാണ് ഒര് ദിവസം

ആ അന്നേരം പീസാക്കി തരണമല്ലൊ എപ്പോൾ കിട്ടണം ഇരുപത് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഉച്ച കഴിയുമ്പം വീട്ടിൽ കിട്ടണം അല്ലേ

അഡ്വാൻസ് ചെയ്യാ ചെയ്തില്ലേ കുഴപ്പമില്ല അവിടെ വരുമ്പം പുള്ളി വരുന്ന പുള്ളിക്കാരൻ്റെ കൊടുത്ത് വിട്ടാൽ മതി ആ അത് വരും വരും വരും അവിടെ എത്തിക്കും പിന്നെ ഇനി വേണേൽ പറയണേ വേറെ അടുത്ത പരുപാടി വരുമ്പോൾ ഇനിയും പറഞ്ഞാൽ മതി കേട്ടോ ആ നമ്മളുടെ ഇറച്ചിയെ പറ്റി ആരോട് വേണേൽ നിങ്ങള് ചോദിച്ച് നോക്കണം നമ്മളുടെ ഇറച്ചിയെ പറ്റി ഇന്ന് വരെ ഒരു മനുഷ്യൻ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ ആ രീതിയിലെ പോകത്തുള്ളു കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തിയേ നമ്മള് കൊണ്ടുപോകത്തുള്ളു ഉള്ള ലാഭം മാത്രല്ല നമ്മളുടെ ഉദ്ദേശം ലാഭം ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല ഇറച്ചി ആൾക്കാർക്ക് കൊടുക്കണം അതാണ് നമ്മളുടെ ഇന്ന് വെട്ടുന്ന സാധനം തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത് നമ്മള് പഴയതൊന്നും കൊടുക്കാറില്ല ഓക്കെ അപ്പം ആ പാവം ആ നമ്മളിത്രയെങ്കിലും ഉള്ളതുകൊണ്ട് ചെറുതൊന്നും ആണേൽ നമ്മള് പോകത്തില്ല പത്ത് പതിനഞ്ച് കിലോ ഉള്ളത് കൊണ്ടും ഇത്ര ദൂരം ഉള്ളത് മാത്രമുള്ളത് കൊണ്ട് വരും അത് ആ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി ഇത് അത് മതി അത് മതി ഇത് ഇത് ഇത് ഇത് കൊണ്ട് പോയി ഉപയോഗിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി ആ ഓക്കെ എന്നാൽ ഓക്കെ